വരൂ മേഡം എന്തൊക്കെയാണ് വേണ്ടത്

ആ വീട്ടീലേക്കെപ്പൊഴാണ് പുതിയ വീടാണൊ ആ അപ്പോൾ നമുക്ക് ഒരു ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ ടി വി എത്ര ഇഞ്ചിൻ്റെ എൽ സി ഡി ആണോ അതോ സാധാ പഴയ മോഡൽ ടി വി ആണോ ഏതാണ് വേണ്ടത് ആ അപ്പോൾ ഏത് കമ്പനിയാണ് നോക്കണത് സാംസങ്ങ് ഉണ്ട് എൽ ജി ഉണ്ട് റെഡ്മി ഉണ്ട് ഏതാണ് വേണ്ടത് എൽ ജി അല്ലേ ആ അത് നമുക്ക് ലാസ്റ്റ് ബില്ല് ഇടുമ്പോൾ ഒക്കെ നമുക്ക് റെഡിയാക്കാം ഇത് നമുക്ക് രണ്ടു മൂന്നു റേഞ്ചിൽ വരുന്നുണ്ട് എൽ ജീൻ്റെ തന്നെ രണ്ടു മൂന്നു വേരിയന്റ് വരുന്നുണ്ട് അപ്പോൾ അതിലേതാണ് വേണ്ടത് വില ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാലായിരത്തിൻ്റെ ഉണ്ട് ഇരുപത്തെട്ടായിരത്തിൻ്റെ ഉണ്ട് ഇപ്പോൾ ഫീച്ചേഴ്സ് ബ്ലൂടൂത്ത് ആതിൻ്റെ ഹോം തീയറ്ററൊക്കെ കണക്ട് ചെയ്യാൻ പറ്റണ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇരുപത്തെട്ടായിരം ഉറുപ്പികയുടേതാണ് വരണത് നാലു കൊല്ലത്തെ വാറണ്ടി ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ നമ്മൾതന്നെ വന്നിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾതന്നെ വന്നു ചെയ്തു തരും ആഹ് ആഹ് അപ്പോൾ ഇതുതന്നെ എടുക്കാം അല്ലേ ആ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ അതാണ് വരണത് പിന്നെ മുപ്പത്താറിൻ്റെ ഉണ്ട് നാപ്പതിൻ്റെ ഉണ്ട് അതിന് വേറെ പ്രൈസാണ് അതിന് കുറച്ചുംകൂടി കൂടുതൽ വില ഉണ്ടാവും മുപ്പത്തിരണ്ടിൻ്റെ ഇഞ്ച് വേണം പറഞ്ഞതുകൊണ്ടാണ് അത് പറഞ്ഞത് ആഹ് അതെ അതെ അതെ കാണാൻ പറ്റും കാണാൻ പറ്റും ഇനിയേതാണ് ഇനിയെന്താ വാഷിംഗ് മെഷീൻ ആണോ വേണ്ടത് നമുക്കിപ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാം എൽ ജിയുടെ എടുക്കണോ ഏകദേശം എല്ലാ സാധനവും ഇപ്പോൾ എൽ ജിയുടെ ബ്രാൻ്റ് വരുന്നുണ്ട് നമുക്ക് ആ വേരിയൻ്റിൽത്തന്നെ നോക്കിയാൽ മതിയോ എൽ ജിയിൽ തന്നെ നോക്കിയാൽ മതിയോ എല്ലാം കംപ്ലൈൻ്റ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെനിന്ന് സർവ്വീസ് ഉണ്ട്

എൽ ജിക്ക് ആകുമ്പോൾ കുറച്ചുംകൂടി സ്പീഡില് കാരണം നമ്മുടെ ഇന്ത്യൻ ഇതായതുകൊണ്ട് എൽ ജിക്ക് കുറച്ചുംകൂടി കൂടുതൽ ആയിട്ടുള്ള ഇതുണ്ട് വിലക്കുറവും ഉണ്ട് ബ്രാൻ്റ് വാല്യുവും കൂടുതലാണ് ഇപ്പോ റീസെയിൽ വാല്യു ഉണ്ട് നിങ്ങൾക്കിപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അത് തിരിച്ച് അത് തിരിച്ചിതാക്കണം എന്നു പറഞ്ഞാൽ നമുക്കത് ഇവിടെ ഇവിടെന്നെ എടുക്കും തിരിച്ചു കൊണ്ടുവന്നാൽ പക്ഷേ അപ്പോഴത്തെ റേറ്റ് നോക്കിയിട്ട് നമ്മൾ കംപ്ലെയിൻ്റ് ഒന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയിട്ട് അത്യാവിശ്യം നല്ല വിലയിട്ട് തരുന്നതായിരിക്കും അതെ ഫുൾ ഓട്ടോമാറ്റിക്ക് ആണ് അതിലിപ്പോൾ നമുക്ക് രണ്ടു വേരിയൻ്റ് ആണ് വരണത് ടോപ്പ് ഫ്രണ്ട് ഓപ്പണും വരുന്നുണ്ട് ടോപ് ഓപ്പണും വരുന്നുണ്ട് അതിലിപ്പോൾ ഏതാണ് വേണ്ടത് ഫ്രണ്ടാണോ ടോപ്പ് ആണോ ഓപ്പൺ ആവേണ്ടത് ആ മുകളിൽ തുറക്കാവുന്ന രീതിയിൽ ഇല്ലേ ആ ഓക്കെ ആ അതിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കിന് വന്നിട്ട് പതിനാറായിരം രൂപയാണ് വരണത് അതെന്തായാലും മൂന്നു വർഷത്തെ വാറണ്ടി ഉണ്ട് കമ്പനി മെയിൻ്റനൻസ് ആണ് മൂന്നുകൊല്ലം റീപ്ലേസ്മെൻ്റ് ഉണ്ട് ഒരു ഫസ്റ്റ് ഇയറിൽ റീപ്ലേസ്മെൻ്റ് വരും പിന്നത്തെ രണ്ടു കൊല്ലത്തിന് നമ്മുടെ കമ്പനി മെയിൻ്റനൻസ് ആണ് വരന്നത് ആ ഓക്കെ നമുക്ക് ഫ്രിഡ്ജ് വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ തന്നെ ഡബിൾ ഡോർ ഉണ്ട് സിംഗിൾ ഡോർ ഉണ്ട് അതിലേതാണ് ഡബിൾ ഡോറ് വേണോ ആ ഓക്കേ ഓക്കേ നമുക്ക് അതിലിപ്പോൾ വന്നിട്ട് ഡബിൾ ഡോറിൽ ഇപ്പോൾ മൂന്ന് വേരിയൻ്റ് ആണ് വരുന്നത് കളർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ഗ്രേയ് ഉണ്ട് പിന്നെ ലൈറ്റ് ബ്ലൂ ഉണ്ട് മറൂൺ ഉണ്ട് ആ ഓക്കേ ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് എൽ ജീൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് ബുക്ക് ഉണ്ട് അതിൽ നോക്കിയിട്ട് മാമിനെല്ലാം പറഞ്ഞു തന്നാൽ മതിയോ നമുക്ക് അവിടെ നിന്ന് അപ്പോൾ നോക്കാം ആ ബുക്കിൽ തന്നെ എല്ലാം ഉണ്ടാവും ഏതൊക്കെയാണ് വേണ്ടത് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മാം അതൊക്കെ നമ്മൾ എന്നിട്ട് മാമിനെ വന്നു കാണിച്ചിട്ട് പാക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ആ അതെ അതെ അതെ ആ അതെ അതെ അപ്പോൾ നമുക്ക് ആ അത് പെട്ടെന്ന് ചൂസ് ചെയ്യുകയും ചെയ്യാം അതിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് വേരിയന്റും കാര്യങ്ങളൊക്കെയേ അപ്പം അതൊന്ന് നോക്കിയാൽ മാമിന് എല്ലാം മനസ്സിലാവുകയും ചെയ്യും ആ പേമെന്റ് ഇപ്പോൾ തരുന്നുണ്ടോ അതൊ ഇ എം ഐ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും വേണോ ആ നമുക്കെന്തായാലും അതിന്റെ ഉള്ളിൽതന്നെ വരുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കൊച്ചുകുടിയിൽ ഏജൻസീൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ആ അതിന് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ടാവും ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മുടെ ഏജൻസി കൊച്ചുകുടിയിൽ ഏജൻസി ഇപ്പോൾ എല്ലാവർക്കും ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കണ സമയമാണ് അവരെ നമ്മുടെ പ്രസിഡൻ്റിൻ്റെ പിറന്നാളൊക്കെയാണ് വരാൻ പോണത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ഓഫർ സെയിൽ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് മാക്സിമം ഒരു വൺ ലാക്കിന്റെ ഉള്ളിൽ നമുക്ക് തീർത്ത് റെഡിയാക്കാം ഓക്കെ മേഡം ശരി മേഡം ശരി ഓക്കെ ഓക്കെ